ഞങ്ങളുടെ വീടിൻ്റടുത്തുള്ള കുട്ടികളൊക്കെ ഐ ഇ എൽ ടി എസ് എഴുതിയിട്ട് കാനഡയ്ക്ക് പിന്നെ യൂറോപ്യൻ കൺട്രികളിലേക്കാണ് അവര് തുടർപഠനത്തിന് വേണ്ടിയും പിന്നെ ഈ അതായത് ഭാഷ പഠിച്ചിട്ട് ജപ്പാൻ ഭാഷയൊക്കെ പഠിച്ചിട്ട് അങ്ങനെ പോവുന്ന ഒത്തിരി പിള്ളേരുണ്ട് അതായത് ഇവിടെ നിൽക്കാതെ പുറത്ത് പുറത്തെ രാജ്യങ്ങളിൽ പോയി പഠിച്ച് വിദ്യാഭ്യാസം നേടണം എന്ന് ആൾക്കെന്ന് കുട്ടികൾ അതായത് അവിടെ ചെന്നാൽ അവിടത്തെ വിദ്യാഭ്യാസത്തിന് കുറച്ച് പൈസ കെട്ടി വച്ചാലും അവിടെ നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും നല്ല സാലറി അവരുടെ മുന്നോട്ടുള്ള ജീവിതമാണ് അവർ നോക്കുന്നത് അങ്ങനെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് എന്തെങ്കിലും ചെറിയ കോഴ്സെടുത്തിട്ട് കാനഡ പോലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ നാല് മാസമാണ് സെമ്മ് വരുന്നത് രണ്ട് വർഷത്തേയ്ക്ക് അവിടെ പോവുന്നു അവിടെത്തന്നെ പഠിക്കുന്നു ജോലി ആക്കുന്നു അവിടെത്തന്നെ സെറ്റിലാവുന്നു ഇവിടെ നോക്കുന്നില്ല നല്ല നല്ല കോഴ്സുകളാണ് അവർ ഈ ഇനി വരുന്ന തലമുറയ്ക്ക് എന്താണോ ആവശ്യം അങ്ങനെയുള്ള കോഴ്സുകളാണ് അവർ ചൂസ് ചെയ്ത് ഇടുക്കുന്നത്